ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റില് മാറ്റം മറിച്ചിലുകൾ ഭയങ്കരമായി നമ്മുടെ ജനങ്ങളേയും സൊസൈറ്റിയെയും എഫക്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വിപണിയിൽ ഷെയർ വാങ്ങിയ പല ആളുകൾക്കും നഷ്ട്ടവും അതുപോലെ തന്നെ ലാഭവും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് നന്നായി പഠിച്ചും അറിഞ്ഞും മാത്രമാണ് നമ്മളീ വിപണീലേക്കിറങ്ങാൻ അതുപോലെ നമ്മൾ ഷെയർ വാങ്ങാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചും നമ്മൾ നന്നായി അറിഞ്ഞും പഠിച്ചും ഇരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ ആപ്പുകൾ വഴിയാണ് ഇന്ത്യയിൽ ഷെയർ മാർക്കറ്റും പലതും നടന്ന് കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൽ കൂടെ പറ്റിക്കലും നടന്ന് കൊണ്ടിരിക്കുന്നത് പല ആളുകളേയും പറ്റിച്ചത് പല ആളുകളേയും ചതിക്കപ്പെട്ടതായും നമ്മൾ വാർത്തകളറിഞ്ഞു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളതും പഠിച്ചും അറിഞ്ഞും ഗവണ്മെന്റ് ഓതറൈസ്ഡ് ആയ ആപ്പുകൾ വഴി മാത്രം നമ്മൾ ഷെയർ മാർകെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് ലാഭം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുക ആപ്പുകളെ പറ്റിയും ഡിജിറ്റൽ ആപ്പുകളെ പറ്റിയും ഷെയർ മാർക്കറ്റിനെ പറ്റിയും പഠിച്ചും അറിഞ്ഞും മാത്രം നമ്മൾ ഈ വിപണിയിലേക്കിറങ്ങുക ഡിജിറ്റൽ അപ്ലിക്കേഷൻ വഴി നടത്തുന്ന ഷെയർ മാർക്കറ്റിൽ അപകട സാദ്ധ്യതകൾ കൂടുതലായി കണ്ട് വരുന്നുണ്ട് ആളുകൾ പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടതായും ലക്ഷങ്ങളും കോടികളും നഷ്ട്ടം വന്നതായും നമ്മൾ ന്യൂസിലൂടെയും പല സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളറിഞ്ഞ് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നോക്കിയും സൂക്ഷിച്ചും മാത്രം നമ്മൾ ഷെയർ മാർക്കെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അതിൽ നിന്ന് ലാഭവും നഷ്ട്ടവും നമ്മൾ ഉണ്ടാവണം അത് അതെല്ലാം പഠിച്ചും അറിഞ്ഞും മാത്രമാണ് നമ്മളീ വിപണിയിലേക്കിറങ്ങാൻ ഈ ഷെയർ മാർക്കറ്റിൽ വരുന്ന മാറ്റം മറിച്ചലുകൾ നമുക്ക് നഷ്ട്ടം വരുത്താനും ലാഭം വരുത്താനും ഉണ്ടാകും അതുപോലെ തന്നെ ഡിജിറ്റൽ ആപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള ഷെയർ മാർക്കറ്റ് ചെയ്യുമ്പോളോ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നല്ല രീതിയിൽ പഠിച്ചും അറിഞ്ഞും വിപണിയിലും ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ വാങ്ങുന്ന കമ്പനിയെക്കുറിച്ചും നല്ല രീതിയിൽ അറിഞ്ഞും പഠിച്ചും മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിലേക്കിറങ്ങാനും ഈ വിപണിയിലേക്കിറങ്ങാനും ഇതിനെക്കുറിച്ചറിയാനും ഇതിൽ നമ്മുടെ പണം നിക്ഷേപിക്കാനും